യെസ് പ്ലീസ് കം ആ ആ ഉം ഓക്ക് ആ ആദിത്യേടെ അമ്മയല്ലേ ആ ആദിത്യ ഇപ്പത്തന്നെ കുറച്ച് ലീവുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച്ച ലീവാണ് ഇപ്പോൾ കൊ പനി കുറവുണ്ടോ ആ ആ തീരെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എട് ലീവ് എടുക്കാം പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പത്തന്നെ ഒരു അണ്ടറാണ് മോളിപ്പോൾ അറ്റൻൻ്റസില് ആ കുഴപ്പം ഇല്ലാന്ന് ഉണ്ടെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമക്ക് സിക്ക് റൂമൊക്കെ ഉണ്ട് കുറച്ച് നേരം വേണെൽ അവിടെ റസ്റ്റ് എടുക്കാം ആ അപ്പം എന്താ ചെയ്യുക

ആ ആ ആ ആ ഇത് ആ പ്രൊസീജിയർന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അത് ഇപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്തല്ലോ ഇനി ഇപ്പോൾ ഒര് പ്രിൻസിപ്പിൾക്ക് ഒര് ലെറ്ററ് എഴുതിയാൽ മതി റിക്വസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലീവിനുള്ളത് ഇപ്പം എന്തായാലും മോൾ ഇവള് ഇത്രയും ലീവ് എടുത്ത് കൊണ്ട് നമുക്ക് ഇത് എടുക്കേണ്ടി വരും ആ മെഡിക്കൽ സർട്ടിഫിക്കേറ്റ് അപ്പം നിങ്ങളതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചോളു അത് ഇനി വരുമ്പോൾ അത് റെഡി ആക്കിയിട്ട് അതും ആയിട്ട് വന്നാൽ മതി മോള് വരുമ്പഴെ ഉം ആ ആ ആ ആ നോട്ട്സ് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്സിനോട് അവള് അവടെ ഫ്രണ്ട്സിനോടെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒന്ന് അയച്ച് തരാൻ പറഞ്ഞാൽ മതി മോൾടെ ഫ്രണ്ട്സിനോട് ആ ഞാൻ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അയക്കാം

ആ പഠിത്തം കുഴപ്പമില്ല ഇത് വരെ കുഴപ്പമില്ല ഇനി ഇപ്പം ലീവ് എടുത്തുകൊണ്ട് അന്നത്ത ഒക്കെ ഓള് പോയിട്ട് ഉണ്ടാകും അതെ ഒരു കുഴപ്പം ഇല്ലാത്ത രീതിക്ക് പോവുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ലീവ് എടുത്തുകൊണ്ട് അ ആ പോഷനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റാണ് അതാണ് ഇപ്പോ പ്രശ്നം അത് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പം നോട്ട്സ് അവൾടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അയക്കാൻ പറയാം പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റായിട്ട് ഇള്ളത് ഞാനും അയച്ച് തരാ പിന്ന ക്ലാസ്സിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യുവല്ലോ അപ്പൊ ഞാൻ അവൾക്ക് പറഞ്ഞ് കൊടുക്കാം പക്ഷെ എല്ലാ സബ്ജക്ട് ടീച്ചേർസിനോടും ആ അവളന്നെ ചെന്ന് ചോദിക്കാൻ ഇപ്പ എനിക്ക് മാത്രം ഞാൻ പറയാം എന്തായാലും ബാക്കി ഉള്ളവരോട് അപ്പോൾ അവള് വരുമ്പോൾ ഇൻ്റർവെല്ലോ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിനൊക്കെ വേഗം ഫുഡ്ഡ് കഴിച്ചിട്ട് ആരോടുത്തെങ്കിലും എല്ലാ ടീച്ചേർസിനോടും ചെന്നിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയറ് ചെയ്യാൻ പറയുക

ആ ആ ആ ആ എന്നാൽ പിന്നെ ഇപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ലെറ്ററ് പ്രിൻസിപ്പിൾന് കൊടുക്കുക എന്നിട്ട് പൊ പൊയ്ക്കോളു ആ ആ ശരി ഓക്കെ